ദീർഘ ദൂരം ബൈക്ക് യാത്രയിൽ നമ്മളേറ്റവും കൂടുതലായി കയ്യില് പിടിക്കേണ്ടതു വെള്ളമാണ് എത്രത്തോളം വെള്ളം കുടിക്കുന്നു ആ എനർജി കൊണ്ടുതന്നെ നമ്മളുടെ ശരീരത്തിനു ക്ഷീണമില്ലാതെയും നമ്മൾക്കു വിശപ്പില്ലാതെയും നമുക്കു യാത്ര സുഖകരമായി ചെയ്യാൻ പറ്റും അതോടൊപ്പം എവിടെയെങ്കിലും നിർത്തി പരമാവധി തണലുള്ള ഭാഗങ്ങളിൽ നിർത്തി കുറച്ച് റെസ്റ്റ് ചെയ്തുപോവുകയാണെങ്കിൽ അത്രയ്ക്കും സൗകര്യം അതോടുകൂടി തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണു ദീർഘ ദൂര യാത്രയ്ക്കു നല്ലത്